എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരാള് ഞാനിപ്പോൾ വരക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ദിവസവും എന്തേലും ഒര് പടം വെച്ച് വരക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലും മതി എന്തെങ്കിലും ഒക്കെ ദിവസവും ഒരു പടം വെച്ചെങ്കിലും വരക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓരോ കാ ഓരോ നമ്മള് ഓരോ സാധനങ്ങള് ഒബ്ജെക്റ്റ്സുണ്ടല്ലോ ഇപ്പോൾ ചെടിയാവാം അല്ലെങ്കിൽ ഒരു പേനയാവാം എന്തെങ്കിലും ഒക്കെ ഒരു ഒരു കപ്പ് ആകാം ഇതിൻ്റെ ഒക്കെ ഷെയിഡിങ് എങ്ങനെയാണ് എന്ന് നോക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ അതിൽ ലൈറ്റ്എങ്ങനെയാണ് വീഴുന്നത് അത് എങ്ങനെയാണ് അതിൻ്റെ എന്തുവ അതിൻ്റെ നിഴൽ എങ്ങനെയാണ് വീഴുന്നത് ഇങ്ങനത്തെ കാര്യങ്ങള് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങള് ശ്രദ്ധിച്ച് വരക്കാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായി എ എളുപ്പം വര അല്ലെങ്കിൽ ഡ്ര ചിത്ര കല നമുക്ക് അഭ്യസിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നല്ലൊരു ഗുരു കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ എളുപ്പം പഠിക്കാന് പറ്റുന്ന ഒരു കലയാണ് ചിത്രകല